ഇതിപ്പോള് എനിക്ക് ഒരുപാട് പരിചയമില്ലാത്ത ഈ നെറ്റ്ഫ്ലിക്സ് അങ്ങനുള്ള കാര്യങ്ങളിൽ വലിയ വലിയ പരിചയമില്ലാത്ത മേഖലയാണ് സിനിമകളും ടി വി പ്രോഗ്രാമുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും പരമ്പര്യ കേബിൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ടി വിയുമായി നമ്മള് കംപേറീയ്യുമ്പോള് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിലും നമുക്ക് ഈ ഈ സ്ട്രീമിങ് സർവീസുകള് തന്നെയാണ് ഈ ആധുനിക സാങ്കേതികവിദ്യയൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് തന്നെയും അല്ല ആധുനിക കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് അത് നെറ്റ്ഫ്ലിക്സൊക്കെ കൂടുതലായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നൊരാഭിപ്രായത്തോടെ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്